ഇപ്പം കൂടുതലും നമ്മളെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താ വച്ചാൽ മലകൾ കുന്നുകളൊക്കെ നികത്തിയിട്ട് വയിലിൽ കൊണ്ടുപോയി മണ്ണ് തട്ടലും പുഴ നികത്തലുമൊക്കെയാണ് ഇപ്പം സംഭവിക്കുന്നത് എന്നിട്ട് അതിൽക്കൂടി ബിൽഡിങ്ങും ഫാക്ടറിയുമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ പുകയും അതിൻ്റെ കീടാണുക്കളും ഇത് മാലിന്യങ്ങളെല്ലാം കടലിലേക്കും പുറന്തള്ളുന്ന ഇതാണ് ഇപ്പം കണ്ടുവരുന്നത് ഏറ്റവും കൂടുതലെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം രാജ്യത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത് അതുപോലെ മരങ്ങളുമെല്ലാം മുറിച്ചിട്ട് ഇപ്പം വെയിലിൻ്റെ അവസ്ഥയാണിപ്പം ഒരു നല്ല തണുപ്പൊന്നും ഇല്ലാത്ത ഏരിയയാണ് ഫുള്ളും വരണ്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മലകളൊന്നും ഇടിക്കാതിരിക്കുക ഇടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതേപോലെത്തന്നെ ഈ മരങ്ങളും വെട്ടാതിരുന്നാൽ നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ രോഗം ബാധിക്കാനാണ് കൂടുതലിത് കടലിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം എന്നു വച്ചു കഴിഞ്ഞാൽ മാലിന്യമാണ് ഫുള്ളും ഫാക്ടറിയിൽ നിന്നും അങ്ങനെയൊക്കെ പോകുന്ന വെള്ളമായതു കാരണം അതേപോലെ റോഡൊന്നും വൃത്തിയില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മഴ നല്ലോണം കിട്ടുന്നില്ല